ഹലോ ആ ആ ഓക്കെ ഓക്കേ എന്താണ് അറിയേണ്ടത് ഇത് കേരൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും റബർ ഉണ്ട് എന്ത് ജില്ല കോട്ടയം തിരുവനന്തപുരം ഇടുക്കി കാസർഗോഡ് പത്തനംതിട്ട എല്ലാ ജില്ലകളിലും റബറിന്റെ ഉൽപ്പദനമുണ്ട് കൃഷിയുണ്ട് ഉം വലിയ ഒരു മേഘലയാണ് കേരളത്തിൽ ഉളള ചെത്ത് റബർ ടാപ്പിങ്ങിനെക്കുറിച്ച് ആണോ ഉദ്ദേശിക്കുന്നത് ഓക്കെ റബർ ട്ടാപ്പിങ്ങ് നമ്മൾ മാർക്കറ്റ് അതിന് ശേഷം മൂന്ന് ദിവസത്തിലൊരിക്കെയാണ് വെട്ടേണ്ടത് മൂന്ന് മൂന്ന് ദിവസം കൂടുമ്പോൾ വെട്ടി അത് പാൽ എടുത്ത് നമ്മൾ ഉറയൊഴിച്ച് ഷീറ്റ് ആക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പാൽ നമുക്ക് പാലായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും

ഡേയ്ലി വെട്ടാൻ വെട്ടിയാൽ റബറിന്റെ പട്ട മരച്ച് പോവും യാതൊരു കാരണവശാലും ഡേയ്ലി വെട്ടരുത് നമുക്ക് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വെട്ടുക വെട്ടി അതിന്റെ പാൽ എടുത്ത് ഉറ ഒഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്നുദിവസം നമുക്ക് ഷേയ്ഡ് ഇട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കൃത്യം മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വെട്ടുമ്പോൾ മാത്രമേ പാൽ നല്ല ഏയ്ഡിങ് കിട്ടുകയുള്ളൂ തീർച്ചയായിട്ടും നല്ല റബറും ഇപ്പോൾ വിലയുള്ള സമയമാണ് നല്ല വിലയുള്ള സമയമാണ് ഇപ്പം നൂറ്റി അമ്പത് ഇരുന്നൂർ രൂപ അടുപ്പിച്ച് ഇപ്പോൾ നിൽപ്പുണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നത് നല്ലതാണ് കാണിച്ച് തരാം എത്ര ആ തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി അമ്പൂരി എന്ന സ്ഥലത്താണ് ഉള്ളത് ഉം അവിടെ വന്ന് കഴിഞ്ഞാൽ ആ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഇവിടെ ഉണ്ടാവും അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം കാണിച്ച് തരാം എന്റെ തോട്ടവും കാണിച്ച് തരാം തീർച്ചയായിട്ടും തുടങ്ങാൻ പറ്റും കേരളത്തിൽ വന്ന് സ്ഥലം വേടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഏഴ് വർഷം ഏഴ് വർഷമാണ് നമ്മൾ തൈ വെക്കേണ്ടത് ഏഴ് വർഷം കഴിഞ്ഞ് നമുക്ക് ടാപ്പ് ചെയ്യാവുന്നതാണ് മ് മ് പതിനഞ്ച് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം ഒക്കെ നമുക്ക് വെട്ടിയെടുത്തിട്ട് കടും വെട്ട് വെട്ടി അത് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് റീപ്ലാന്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക് ഓക്കെ ഓക്കെ